പാലക്കാട് ജില്ലയിലെ കാലാവസ്ഥ പൊതുവേ ചൂടാണ് മറ്റുള്ള ഏത് ജില്ലയേക്കാളും ഏറ്റവും അധികം കൂട് കൂടുതല് ചൂടുള്ള ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല മഴയും വളരെ കുറവാണ് വെള്ളവും കുറവാണ് ശൈത്യം അത്യാവശ്യം ഉണ്ടാകും എങ്കിലും അത് ഈ തമിഴ്മാടിൻ്റെ കാലാവസ്ഥയോട് യോജിച്ച് നിൽക്കുന്ന ഒരു ജില്ലയായത് കൊണ്ട് പൊതുവേ ചൂടാണ് കൂടുതല് ഇപ്പോൾ എവിടെ ഒക്കെ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ ദുരിതങ്ങളും ഉണ്ടാവുകയാണെങ്കിലും അത് പാലക്കാട് ജില്ലയിൽ ബാധിക്കത്തില്ല അതൊരു കടല് ഇല്ല എന്നുള്ളതാണ് പാലക്കാട് ജില്ലക്കുള്ള ഏറ്റവും വലിയ ഒരു ഇത് ന്യൂനത അപ്പോൾ അത് കൊണ്ട് തന്നെ മഴക്കാലം മറ്റുള്ള എല്ലാ ജില്ലകളിലെക്കാൾ ഏറ്റവും കുറച്ച് മഴയാണ് കിട്ടുന്നത് താപനില ഇപ്പോൾ നാൽപ്പത്തിൻ്റെ മീതെ ആയിട്ടാണ് നിൽക്കുന്നത് വളരെ വ്യത്യാസം മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് കുറവാണ് തണുപ്പ് ഒക്കെ സാധാരണ വലിയ വ്യത്യാസം ഒന്നുമില്ല എങ്കിലും മറ്റുള്ളവരെ അപേക്ഷിച്ച് അത്രയധികം തണു ഇല്ലാത്ത ഒരു സ്ഥലമാണ് പാലക്കാട് ജില്ല